ഞാനൊരു ചെറുകിട വ്യവസായമാണ് ചെയ്യുന്നത് ഞാൻ വിളക്കുതിരിയാണ് വ്യവസായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാഭം ലഭിക്കാതെയില്ല എന്നാൽ ചില സമയത്ത് ലാഭം ഇല്ലാതെയും അവസ്ഥ വന്നിട്ടുണ്ട് അത് ബാങ്കുമായി ബന്ധപ്പെട്ടാൽമതി നിങ്ങൾക്ക് ചെറുകിട വ്യവസായം ചെയ്യാൻ ബാങ്കുകാർ സഹായിക്കും ലോണ് തന്ന് സഹായിക്കും അത് നിങ്ങൾ ബാങ്കുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത് ഓരോ ബാങ്കിൽ ഓരോ റൂളാണല്ലോ നിയമങ്ങളാണ് അപ്പോൾ ചായപ്പൊടിയുടെ വ്യവസായം വ്യവസായം ഏത് തന്നെ ആണെങ്കിലും അതിനൊരു ചില സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് ലാഭം കിട്ടും ചില സമയങ്ങളിൽ നമ്മൾക്ക് കുറച്ച് ലാഭം മാത്രമേ കിട്ടത്തുള്ളു എനിക്കിപ്പോൾ വിളക്കുതിരിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽത്തന്നെ എനിക്ക് പൂജ ടൈമുകളിലാണ് കൂടുതലും ലാഭം കിട്ടുന്നത് അല്ലാത്ത സമയത്തെനിക്ക് ലാഭം കിട്ടാറില്ല അതാണ് വ്യവസായത്തിൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഈ ചായപ്പൊടിയാകുമ്പോൾ ഓക്കെ നീ നിങ്ങൾ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് നല്ല ഗുണമേന്മയുള്ള സാധനമാണ് നിങ്ങൾ വിൽക്കപ്പെടുന്നത് എങ്കിൽ അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും ആ അത് വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവും കാരണം അവർക്കതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണല്ലോ അവർ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് അത് വേണ്ടി വരും അപ്പോൾ അത് ആവശ്യപ്പെടും നിങ്ങളോട് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽത്തന്നെ നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽമതി നിങ്ങൾ ഈ വ്യവസായം തുടങ്ങുന്ന സമയത്ത് എന്നെ ഒന്ന് ബന്ധപ്പെട്ടാൽമതി ഞാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ആ ശരി ആ ശരി